ആ ഫ്രീ ആണ് ഓക്കെ എന്താ പേര് എന്തായിരുന്നു ശ്രേയ ഓക്കെ ആ ഇപ്പോൾ ഫ്രീ ആണ് പറഞ്ഞോളൂ എന്താ

ആ ആണല്ലേ എത്ര കല്ല്യാണം കഴിഞ്ഞ് എത്ര വർഷം ആയീന്നാണ് പറഞ്ഞത് ആ എന്താ എന്താ പ്രശ്നം എന്താ

ഓക്കെ അവര് ഭർത്താവ് എന്താ ചെയ്യുന്നത് ബിസിനസ്സ് ചെയ്യാണ് എവിടെയാണ് നിങ്ങൾ എവിടെയാണ് സെറ്റിലായത് എവിടെയാണ് കൊച്ചിയിൽ ആണല്ലേ ഓക്കെ നിങ്ങള് വർക്ക് ചെയ്യുന്നുണ്ടോ ഓക്കെ അവര് എത്ര ടൈമ് തൊട്ട് എത്ര ടൈമ് വരെയാണ് ജോലിക്ക് പോവുന്നത്

ഓക്കെ അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ആണോ പ്രശ്നം കമ്മ്യൂണിക്കേഷൻ കുറവ് ആണുന്ന് ആണോ പറഞ്ഞത് ഓക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് വീക്കെൻഡില് ലീവ് ഒക്കെ എങ്ങനെയാണ് ശനിയാഴ്ച ഞായറാഴ്ച ലീവാണ് രണ്ട് പേർക്കും ആണല്ലോ അവർക്ക് അവർക്ക് എങ്ങനെയാണ് ഹസ്ബൻഡിന് എങ്ങനെയാണ് അതെ അല്ലേ ഓക്കെ അപ്പോൾ നിങ്ങള് മ് നിങ്ങള് കുറച്ച് ടൈമ് ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്ന പോലെ എങ്ങനെ എങ്കിലും നിങ്ങള് സംസാരിക്ക് ആദ്യം ഒര് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ ആണെങ്കിലും നിങ്ങള് ഒന്നിച്ച് ഇരുന്ന് ഒന്ന് സംസാരിച്ച് നോക്ക് എനിക്ക് സംസാരിക്കാൻ ഇണ്ട് എന്താ നിങ്ങളെ ഫീലിംഗ്സ് ഒക്കെ ഒന്ന് പറയുന്ന പോലെ നിങ്ങളൊന്ന് ഒന്നിച്ച് ഇരുന്ന് സംസാരിച്ച് നോക്ക് പിന്നെ അതില് ഡിസിഷൻ എടുക്ക് നിങ്ങള് എന്താ ഒന്നിച്ച് ഒന്ന് ഔട്ടിംഗിന് പോകാനോ എടക്ക് ഒരു കോഫി കുടിക്കാൻ പുറത്ത് റസ്റ്റോറൻറ്റിൽ പോവുക നൈറ്റ് ഫുഡ് കഴിക്കാൻ പോവുക ചെറിയ ഒര് ടൈമ് നിങ്ങളൊന്ന് സംസാരിക്കാൻ വേണ്ടി കണ്ടെത്തി നോക്ക് പിന്നെ എന്തെങ്കിലും എന്താ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ലാന്ന് ആണെങ്കില് നിങ്ങളൊന്നൂടെ എന്നെ വിളിച്ചാൽ മതി ഞാൻ അപ്പോയിൻമെൻറ്റ് എടുത്ത് നിങ്ങൾക്ക് ഓഫീസില് വന്ന് എന്നെ കാണാം ഓക്കെ ശരി എന്നാൽ നിങ്ങളൊന്ന് സംസാരിച്ച് നോക്ക് രണ്ട് ആളും ഒന്ന് റെഡി ആവാൻ പറ്റുവോന്ന് നോക്ക് സംസാരിക്കണം കമ്മ്യൂണിക്കേഷൻ ആദ്യം ഒന്ന് വേണം നിങ്ങളൊന്ന് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന പോലെ ഒന്ന് ഇരുന്ന് നോക്ക് രണ്ട് പേരും അത് കഴിഞ്ഞ് നമക്ക് കോൺടാക്ട് ചെയ്യാം ഓക്കെ ശരി